ഹലോ ആ ഞാനേ ഓൺലൈൻ ആയിട്ട് വാങ്ങിയ ആ വാച്ച് സ്മാർട്ട് വാച്ച് ആയിരുന്നേ അപ്പോൾ അതിന് ഞാൻ അന്ന് കൊടുത്തിരുന്ന കളർ അല്ല ഇപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് അപ്പം അതിൻറെ പിന്നെ ചെ ചെക്ക് ഔട്ട് ആയിട്ട് ഞാനിപ്പോൾ മൊത്തം തുക ഞാൻ അടച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആ കളറിന് ചേഞ്ച് വന്നതുകൊണ്ട് നിങ്ങൾ അതിൻറേതായ വില മാറ്റം ഉണ്ടാവുമല്ലോ ഞാൻ ആവശ്യപ്പെട്ട കളർ അല്ല നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ കളർ എനിക്ക് അല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നിങ്ങൾ അതിൻറെ തുക എനിക്ക് ആ പൈസ ഞാൻ അടച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് കുറച്ചു ഡിസ്കൗണ്ട് ചെയ്ത് തരണം